രാജ്യത്ത് ഇന്നു നില നിൽക്കുന്ന അതായത് ലഭ്യമായിട്ടുള്ള ആശുപത്രികളെക്കുറിച്ചും മെഡിക്കൽ സേവനങ്ങളെക്കുറിച്ചും എൻ്റെ അഭിപ്രായം എന്നു പറയുന്നത് ഇവിടങ്ങളിലെ ചിലവും മറ്റും താങ്ങാവുന്നതല്ല മുമ്പത്തേതിനേക്കാൾ മികച്ച സൗകര്യങ്ങളാണ് ഉള്ളതെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ടും അത് ഒരു കച്ചവട കച്ചവട മേഖലയായിട്ട് ഒരു വ്യവസായമായിട്ടാണ് ആശുപത്രികളെയും മറ്റും ജനങ്ങൾ കാണുന്നത് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട് എൻ്റെ അനുഭവം എന്നു പറയുന്നത് വളരേ വിഷമകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എൻ്റെ പ്രദേശത്ത് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിന് നിരവധി കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതെന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയും മറ്റും നിരവധി ആരോഗ്യമായി ബന്ധപ്പെട്ട അതായത് ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങൾ കൊണ്ടു വരേണ്ടതുണ്ട് ഇന്നാശുപത്രികളെക്കുറിച്ചും മറ്റും പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടൊരു കാര്യമാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ അനുസരിച്ച് അതൊരു കച്ചവട മേഖല മാത്രമായി മാറുകയാണ് അതായത് ഒരു ഓപ്പറേഷന് കയറുന്ന ആളെ സംബന്ധിച്ച് കത്രികയും അതുപോലെ തന്നെ മറ്റും അതായത് വലത്ത് കൈയ്ക്ക് ഓപ്പറേഷൻ ഓപ്പറേഷന് ചെ കയറി ചെല്ലുമ്പോൾ ഇടതു കൈ അനസ്തേഷ്യക്കു ശേഷം ഇടതു കൈ ഓപ്പറേഷൻ ചെയ്തിറക്കുകയും അതു പോലെ ഓപ്പറേഷനു ശേഷം കത്രികയും മറ്റു സാധനങ്ങളും വയറ്റിൽ തന്നെ വെച്ചു തുന്നി വെച്ചു മറക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റും കണ്ടുവരാറുണ്ട് അത്തരത്തിൽ വളരെ ലാഘവത്തോടെയാണ് ഈ ആരോഗ്യ മേഖല ഇന്ന് മിക്കവരും മിക്ക ഡോക്ടേഴ്സായിക്കോട്ടെ ആരോഗ്യവകുപ്പിൽ ഇരിക്കുന്ന വലിയ ഉദ്യോഗസ്ഥർ ആയിക്കോട്ടെ ഇത്തരത്തിലാണ് കണ്ടു വരുന്നത് എന്താ ഇതൊരു കച്ചവട മേഖലയുമായിട്ട് മാത്രം മാറുകയാണ് അതായത് കൂടുതൽ സൗകര്യങ്ങൾ നമ്മുടെ ആശുപത്രികൾ നമുക്ക് ചുറ്റുമുള്ള ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അതനുസരിച്ചുള്ള പണമാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് ഒരു ചെറിയ കാനുലക്ക് പോലും നിരവധി അതായത് ഗവൺമെൻ്റ് ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച് ഒരു ട്രിപ്പിടുന്നതിന് നിസ്സാര തുക പോലും അല്ലെങ്കിൽ മരുന്ന് പുറത്തു നിന്ന് വാങ്ങണമെങ്കിൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ടും പൈസ പോകുന്നു എന്നാൽ അതൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറുകയാണെങ്കിൽ കാനുല തൊട്ട് അതു പോലെ തന്നെ കാഷ്വാലിറ്റിയിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതു വരെയായിട്ടുള്ള ഇല്ലെങ്കിലവിടം തൊട്ട് ഒരു ഓരോ ഡോക്ടറിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോഴും നമ്മുടെ അവസ്ഥയനുസരിച്ച് ഓരോ ഡോക്ടേഴ്സ് നമ്മളെ കൺസൾട്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നതിനെല്ലാം സ്പെഷ്യൽ ചാർജ്ജുകളും നമ്മളുടെ അടുത്തെത്തുന്ന നേഴ്സുമാർക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ ചാർജ്ജുകളും നമ്മുടെ ആ ആ ദിവസത്തെ ആ ഹോസ്പിറ്റൽ റൂമിലെ കറൻ്റ് ബില്ലും അതുപോലെ തന്നെ നമുക്ക് തരുന്ന മരുന്ന് എല്ലാ ഇൻജക്ഷനും എല്ലാറ്റിനും സെപ്പറേറ്റ് പൈസയും മറ്റും ഈടാക്കുന്നു അത്തരത്തിലൊരു വലിയ ലാഭകരമായൊരു ബിസിനസ്സ് സമൃദ്ധമായമായിട്ട് ഇന്ന് ഈ ആശുപത്രിമാർ മാറ്റപ്പെടുന്നുണ്ട് അതാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശമായി പിന്നീട് കോവിഡ് മഹാമാരിയുമായി എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് കോവിഡ് മഹാമാരിയിൽ മറ്റും എൻ്റെ ചേച്ചിക്ക് ഒരു ചെറിയൊരു ചെറിയൊരു ഇൻ ഇൻറ്റർവ്യൂവും മറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ ആവശ്യവുമായി സംബന്ധിച്ച് ഞങ്ങൾ കോതമംഗലത്ത് പോകുകയും അവിടെ നിന്ന് അവിടെ രണ്ടു ദിവസം സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ തിരിച്ചു വരുന്നതോടൊപ്പം എനിക്ക് അസ്വസ്ഥൻ അസ്വസ്ഥത ഉളവാകുകയും അതുപോലെതന്നെ തൊണ്ടവേദനയും തലവേദനയും മറ്റും വരികയും ചെയ്തു പിന്നീട് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഗവൺമെൻ്റ് ഹോസ്പിറ്റലിൽ പോകുകയും കോവിഡ് ചെക്ക് ചെയ്യുകയും സാധാരണ ഹോസ്പിറ്റലുകളും അതുപോലെതന്നെ ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും പേടിയുള്ള എനിക്ക് മൂക്കിനകത്തു കൂടി ഇതിൻ്റെ സ്രവം എടുക്കുന്ന ടെസ്റ്റ് വളരേ ദയനീയമായ ഒരവസ്ഥയായിരുന്നു എനിക്ക് വരുത്തിയിരുന്നത് കരയുകയും അതുപോലെതന്നെ അതിലുപരി സർവ്വോപരി ടെൻഷൻ അധികമായി അടിക്കുകയും ചെയ്തിരുന്നു തലകറക്കം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശേഷം അതെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടും അതിനുശേഷവും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് വരികയും ചെയ്തിരുന്നു പിന്നീട് എൻ്റെ പ്രദേശത്ത് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്നതിന് നിരവധി കാര്യങ്ങൾ അംഗൻവാടികളിലൂടെ ഉൾ മൊത്തമുള്ള എല്ലായിടത്തും ബോധവത്കരണ ക്ലാസ്സുകളും അതുപോലെതന്നെ അച്ചടക്കമുള്ള അഴിമതി രഹിതമായ ഒരു ആരോഗ്യവകുപ്പിനെയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു അതായത് അഴിമതി ചെയ്യാത്തവരെ അതുപോലെതന്നെ ആരോഗ്യവകുപ്പിനു വേണ്ടി നൂറു ശതമാനം എന്താ നൂറു ശതമാനം എഫേർട്ടോടു കൂടി നമ്മുടെ രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ജില്ലക്കു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവരായ ഉദ്യോഗസ്ഥന്മാരെ വരുന്നതിലൂടെ തന്നെ ഈ ആരോഗ്യ പരിരക്ഷ മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യത വളരെ വലുതാണ് അതുപോലെതന്നെ ഓരോ ഹോസ്പിറ്റലിലും മറ്റുമുള്ളവരുടെ മനോഭാവും നമ്മളുടെ ആരോഗ്യ പരിരക്ഷയെ സാരമായി ബാധിക്കുന്നുണ്ട് അവരുടെ മനോഭാവം അനുസരിച്ച് ആ രോഗിക്കു വേണ്ട രീതിയിലുള്ള കാര്യങ്ങളും മറ്റും ചെയ്തു വരുന്നതിലൂടെ നമുക്ക് ധാരാളം മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നു